ഞങ്ങളിവിടെ നിലവിൽ ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും ഉള്ളതെന്ന് വെച്ചാൽ ഈ പത്ത് മണിപ്പൂവില്ലെ പത്ത് മണി നാല് മണി മൂന്നു മണി അങ്ങനെ പലതും ഓരോ കളറിന് ഓരോ പൂവിനും ഓരോ കളറാണ് അപ്പോൾ അത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് ചാ സെറ്റ് ചെയ്തു വയ്ക്കാൻ പറ്റും ഇപ്പം ഏത് ഷെയിപ്പിൽ വേണമെങ്കിലും നമുക്കതിനെ വളർത്താൻ പറ്റും അങ്ങനൊരു പ്രത്യേകത ഉള്ളത് ഒരു ചെടിയാണ് അപ്പം അതുകൊണ്ടു തന്നെ അതിൻ്റെ വീട്ടിലൊരുപാടുണ്ട് അപ്പം അത് നമ്മൾ ഉള്ളതിനെ തന്നെ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെങ്ങനെയെന്ന് വെച്ചാൽ അതിൽനിന്ന് തന്നെ നമ്മൾ പിടിച്ച് നിൽക്കുന്ന സമയത്ത് മൊട്ടോടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ സൈഡിൽ നിന്നിങ്ങനെ ഒടിച്ചിട്ട് ഒരു വേറൊരു കവറിനകത്ത് മണ്ണൊക്കെ നിറച്ച് വളം ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ കുത്തി വെച്ച് ആദ്യം ഒരു കവറിൽ മുളപ്പിച്ചെടുത്തിട്ട് കുറച്ച് വലുതാകുമ്പോൾ അത് കവറിൽ നിന്ന് പിരിച്ച് നമ്മൾ തറയിലോട്ട് നടും അങ്ങനെയാണ് നമ്മൾ കൂടുതലും ഉൽപ്പാദിപ്പി പിന്നെ അങ്ങനെ ഉള്ള രീതിയിലുള്ള ആ ഷെ ആ ഒരു ടൈപ്പ് ആ രീതിയിലുള്ള പൂക്കളൊക്കെ നമ്മൾ കൂടുതലും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കടകളിലൊക്കെ പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഇതുപോലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് വരും കാരണം പല പല നമ്മടേൽ ഇല്ലാത്ത ത് രീതിയിലുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ കാണാനൊക്കെ ഭംഗി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിങ്ങനെ പിരിച്ച് പിരിച്ച് നടും കാരണം കൊണ്ടുവരുന്ന ആദ്യം നട്ടതിന് ശേഷം അത് കുറച്ച് വളരുമ്പോൾ കുറച്ച് അതിൽനിന്ന് സൈഡിൽനിന്ന് വെട്ടി എടുത്ത് വേറൊരു കമ്പിലോട്ട് നട്ട് വേറൊരു ചെടി ചട്ടിയിലോട്ട് നട്ട് അത് കുറച്ച് വളർന്നു വരുമ്പോൾ അവിടെനിന്ന് പിരിച്ച് അങ്ങനെ പിരിച്ച പിരിച്ച് നട്ട് നട്ട് നമ്മൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും